ഹലോ ശ്രേയസ് ഗ്യാസ് ഏജൻസി അല്ലേ എനിക്കൊരു ഗ്യാസ് സിലിണ്ടർ വേണമായിരുന്നെ ഞങ്ങളൊരു യാത്രയിലായിരുന്നു അതു കാരണം ഗ്യാസ് സിലിണ്ടർ അത്യാവശ്യമായിട്ടും വേണം ഞങ്ങൾക്കെ ആ ഞങ്ങളിപ്പോൾ വന്നതേയുള്ളൂ വന്നതെന്നു പറഞ്ഞാൽ മീൻസ് ഒരു അരമണിക്കൂറോളം ആയി പക്ഷേ ഗ്യാസ് വേണമായിരുന്നു ഞങ്ങളൊരു ദൂരയാത്രയ്ക്കു പോയതു കാരണം കണക്ഷൻ ഒക്കെ വിച്ഛേദിച്ചിട്ടാണ് പോയത് അതു കാരണം ഞങ്ങൾക്കിപ്പോൾ ഗ്യാസ് ഇല്ല അ ഇവിടെ നെറ കുറ്റി ഒന്നും ഇരിപ്പില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യവശ്യമായിട്ടും ഗ്യാസ് വേണം ഒരെണ്ണം കൊണ്ടു തരാൻ പറ്റുമായിരിക്കുമോ ഞങ്ങളുടേ ഈ അടുത്തുള്ള വീടുകളിലാണെങ്കിലും ചോദിച്ചിട്ട് എല്ലാവരും നിറച്ചതൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്തെന്നു പറഞ്ഞ് അതു കാരണം ഞങ്ങൾക്ക് ഒരെണ്ണം ഒന്ന് എടുക്കാനും പറ്റിയില്ല അതുകൊണ്ടാണെ ഉപേക്ഷ വിചാരിക്കാതെ ഒരെണ്ണം കൊണ്ടു തരാൻ പറ്റുമായിരിക്കുമോ ആ ആ ഞങ്ങൾ പോയിട്ട് ഒരു മാസത്തോളം ആയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു ദൂര യാത്രയിലായിരുന്നെന്ന് ആ ഒരു മാസത്തിനു മുകളിലായി അതുകൊണ്ടാണെ അങ്ങനെ കണക്ഷൻ ഡിസ്കണക്റ്റ് ചെയ്തിട്ടു പോയത് പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ ആ ഡെലിവറി ബോയ് വരുന്നത് ഒരു പുള്ളിയുടെ പേരെന്തോ ജോഷിയോ മറ്റോ ആയിരുന്നു ആ ആ പുള്ളിയാണ് ഞങ്ങൾക്കു സ്ഥിരം കൊണ്ടു തന്നു കൊണ്ടിരുന്ന ആളെ ആ പുള്ളിയെ വിളിക്കുമ്പം ക് ഉടനെ തന്നെ കൊണ്ടു തരുമായിരുന്നു പക്ഷെ ഇപ്പം വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നാൽ സംഭവം എന്നറിയത്തില്ല അതുകൊണ്ടാണ് നേരിട്ട് ഞാൻ ഏജൻസിയിലോട്ടു വിളിച്ചത് ആ ഞങ്ങളുടെ കൺസ്യൂമർ നമ്പർ മൂന്ന് മൂന്ന് അഞ്ച് രണ്ട് ആണേ ആ ഞാനെ ബിന്ദു ഇത്തിത്താനത്തൂ നിന്നാണ് വിളിക്കുന്നത് അ ഞങ്ങൾക്കിവിടെ പുള്ളിക്കാരനാണ് കൊണ്ടു തരുന്നത് അ അതുകൊണ്ടൊന്ന് എത്രയും പെട്ടെന്നൊന്നു കൊണ്ടു തരാൻ പറ്റുമായിരുന്നെങ്കിൽ ഉപകാരമായേനെമായിരുന്നു അ ഞങ്ങൾ വന്നിട്ട് അ ഭക്ഷണം ഒക്കെയൊന്നു പാകം ചെയ്യേണ്ടതല്ലേ വന്നിട്ടു ടയേഡ് ആയാണു വന്നത് അതുകൊണ്ടാണ് പെട്ടെന്നൊന്നു വിളിക്കാമെന്നു വെച്ചത് വേറാരെയെങ്കിലും ഉണ്ടോ ഒന്നു വിടാനായിട്ട് അതോ അവിടെ എത്തേണ്ടി വരുമോ എടുക്കാനായിട്ട് തന്നെയുമല്ല ഇവിടെയിപ്പോൾ ആരുമില്ല ഞാൻ ഞങ്ങൾ സ്ത്രീകൾ രണ്ടുപേരെ ഉള്ളൂ വന്നവരൊക്കെ വെളിയിലോട്ടു വീണ്ടും പോയേക്കുവാണ് അതു കാരണം ആരും വരാനില്ല അതുകൊണ്ട് നിങ്ങക്കൊന്ന് കൊണ്ടൂ തരാൻ പറ്റുമായിരുന്നെങ്കിൽ ഉപകാരമായേനെ മായിരുന്നു അ അ അ ജോഷി ഇല്ലേ ഞങ്ങൾക്കിവിടെ കൊണ്ട് തന്നു കൊണ്ടിരുന്ന ആ പയ്യനെ പുള്ളി അവിടെ ഇല്ലേ അതോ അതുകൊണ്ടാണോ അ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തും ഇല്ല അതുകൊണ്ടാണെ ഞാൻ നേരിട്ടു വിളിക്കാമെന്നു വെച്ചത് അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് കൊണ്ട് തന്നിരുന്നെങ്കിൽ ഉപകരമായേനെമായിരുന്നു ആ ഞാൻ പറഞ്ഞില്ലേ അ ഞങ്ങളൊരു യാത്രയിലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഗ്യാപ് ആയി പോയത് അ ഒന്നു കൊണ്ടു തരാനായിട്ടു വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ എല്ലാവരും ഡെലിവറിക്കു പോയേക്കുവാണോ അ എന്നാലും ഒന്ന് ഒന്ന് നോക്കാമോ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ഉപേഷ വിചാരിക്കരുത് അതെന്നാന്ന് പറഞ്ഞാൽ അത്യാവശ്യമായതു കൊണ്ടാണെ ഒന്ന് എത്രയും പെട്ടെന്നൊന്ന് എത്തിക്കാൻ പറ്റിയായിരുന്നു ഒരുപകാരമായേനെവായിരുന്നു ആ അ അ ഞാൻ പറഞ്ഞല്ലോ അയൽവക്കത്താണെങ്കിലും ഒന്നു ചോദിച്ചിട്ട് ഞങ്ങൾക്കത് ഒരു എന്നാൽ ഒന്ന് എടുക്കാമെന്നും പറഞ്ഞ് അയൽവക്കത്തെ വീടുകളിൽ ചോദിച്ചിട്ടും ഇല്ലാ അതുകൊണ്ടാണ് ഇത്ര ഞാൻ അത്യാവശ്യം പറയുന്നത് അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്നൊന്ന് എത്തിച്ചാൽ ഉപകാരമായേനെ ആ ഓക്കേ താങ്ക് യൂ ഒന്നു കൊണ്ടു തരാനായിട്ട് ഉപേക്ഷ വിചാരിക്കാതെ ഒന്നു തരണം കേട്ടോ ശരി ഓക്കെ